ശരിക്കും ചെറുകിട വ്യവസായികൾക്ക് ബാധിച്ചിട്ടുള്ളത് മാളുകള് സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെ ഉള്ള വലിയ വലിയ സംരംഭങ്ങൾ വന്നതോട് കൂടി ഈ ഓട്ടോറിഷ അങ്ങനെ ഉള്ള ചെറിയ ചെറിയ വണ്ടികളിൽ കൊണ്ടുപോയി വിൽക്കുന്ന സാധനങ്ങൾക്കൊന്നും വില മതിക്കാണ്ടായി പിന്നെ നമ്മള് വലിയ മാളുകളിലും അവിടെ ഒക്കെ കയറുമ്പോഴുള്ള ഓഫറുകൾ ഇട്ടിട്ടുണ്ടാകും അവിടെ നമുക്ക് വില പേശാനോ സാധനങ്ങള് വാങ്ങാനോ ഈ ചെറുകിട വ്യവസായികളുടെ അടുത്ത് നിന്ന് വില പേശി നമ്മള് സാധങ്ങൾ വാങ്ങുന്നത് പോലെ വൻകിട വ്യവസായികളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വില പേശി സാധങ്ങൾ ഒന്നും വാങ്ങാൻ പറ്റില്ല അപ്പം അവരുടെ അടുത്തേക്ക് കൂടുതൽ ആൾക്കാര് പോകുമ്പോൾ ഈ ചെറുകിട വ്യ വസായികളുടെ അടുത്തേക്ക് ആൾക്കാര് ചെല്ലാണ്ടാവും അപ്പം അവര് ഒരു മൊത്തം വില ഇട്ടിട്ട് അവരത് വൻ കിട വ്യവസായികള് ചെറ്കിട വ്യവസായികളുടെ കയ്യിൽ നിന്ന് എടുത്ത് കഴിയുമ്പം അവർക്ക് അവിടെ സംരംഭങ്ങൾള് വളരെയധികം മാറ്റങ്ങള് വരുന്നു അങ്ങനെ വൻകിട വ്യവസായികൾക്ക് വളരെയധികം വിൽപ്പനകളും ചെറ്കിട വ്യവസായികൾക്ക് അവരുടെ സാധങ്ങൾ സാധാരണക്കാർക്ക് കൊടുക്കാനും പറ്റാത്തൊരവസ്ഥ ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം അതാണ് വൻകിടയും ചെറുകിട വ്യവസായികളും തമ്മിലുള്ള വളരെ വ്യത്യാസങ്ങള് വന്നേക്കുന്നത്